എനിക്ക് തോന്നുന്നത് റേഡിയോകളാണ് ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ നൽകുന്നതെന്നാണ് കാരണം നമ്മള് എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ് റേഡിയോ റേഡിയോയില് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു അന്നുമുതൽ കേട്ടുകൊണ്ടിരുന്നത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാനെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കേട്ടിരിക്കുന്ന വാർത്തകള് അതുപോലെ തന്നെ വയലും വീടും എന്നുപറയുന്ന പരിപാടികള് അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റേഡിയോയിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെക്കാലത്ത് റേഡിയോയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല കാരണം എല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ മാറിയിരിക്കുന്നത് കാരണം കൊണ്ട് ആർക്കും അതിനോട് വലിയ താല്പര്യങ്ങളൊന്നും തോന്നുന്നില്ല റേഡിയോയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് എന്താണ് നമ്മുടെ ആനുകാലിക കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങള് ഒരുപാട് നല്ല നല്ല കാര്യങ്ങള് നല്ല എന്താണ് എനിക്ക് പറയുകയാണെന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല ഗുണപാഠ കഥകള് ചെറുപ്പകാലങ്ങളിലൊക്കെ നല്ല ഗുണപാഠ കഥകളൊക്കെ കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മള് കാണുന്നതും കേൾക്കുന്നതും സത്യസന്ധമായ യാതൊരു കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല കേൾക്കുവാൻ കഴിയുന്നില്ല നമ്മളിപ്പോള് റേഡിയോയുടെ സ്ഥാനത്തേക്ക് ഇപ്പോള് ടി വി അതുപോലെത്തന്നെ പത്രവാർത്തകളൊക്കെ നമ്മള് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ എങ്കില് അതിലൊന്നും എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം ഇങ്ങേയറ്റം രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളിലാണെങ്കിൽപ്പോലും ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ തലമുറ എന്ത് കണ്ടാണ് വളരുന്നത് കാരണം ഇന്ന് സത്യസന്ധമായ ഒരു കാര്യങ്ങളും കാണുവാനില്ല എത്ര വലിയ ആൾക്കാരാണെങ്കിൽപ്പോലും അവര് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അതിനെ വീണ്ടും വിസ്തരിക്കുന്നു അപ്പോൾ കൊച്ചുകുട്ടികൾ പോലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായ ഒരു കാര്യവും ആര് നേര് പറയുന്നു ആര് നുണ പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നേരിൽ കണ്ട കാര്യങ്ങൾ പോലും അൽപ്പസമയം കഴിയുമ്പോഴേക്ക് അവര് കണ്ടില്ലെന്ന് പറയുന്നു അത് നമ്മളിപ്പോൾ ടി വിയിലാണെങ്കിൽ നമ്മളത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിന് ശേഷം പിന്നെ അങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല അങ്ങനെയല്ല നടന്നത് അത് ഇങ്ങനെയാണെന്ന് കാണിച്ച് തന്നിട്ട് അതിനെ തന്നെ മറ്റൊരു വിധത്തിലേക്ക് ആക്കിക്കൊണ്ട് മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് അതേസമയം പണ്ടുകാലം മുതലേ നമുക്ക് റേഡിയോ നമ്മളെ എല്ലാവരെയും ഒരുപാട് സ്വാധീനിച്ചിരുന്നു ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവർക്ക് അതിനോട് യാതൊരു ഇൻട്രസ്റ്റുമില്ല നേരിട്ട് കാണുന്ന കാര്യങ്ങള് മാത്രമാണ് അതിലെ അതുപോലെ തന്നെ മൊബൈലുകള് ഒക്കെ വന്നതോട് കൂടി റേഡിയോയ്ക്ക് പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യസന്ധമായ നേരായ വാർത്തകൾ നമുക്ക് അറിയണമെങ്കിൽ റേഡിയോ തന്നെയാണ് എപ്പോഴും നല്ലൊരു ഇത് തരുന്നതെന്നതിന് യാതൊരു സംശയവുമില്ല പത്രങ്ങൾ തന്നെ നമുക്കെടുക്കാം പത്രങ്ങള് ഒന്നാമതിപ്പോൾ പത്രവായന കുറഞ്ഞിരിക്കുന്നു ടി വിയുടെ വരവോടുകൂടി പത്രങ്ങൾ മാക്സിമം എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വായനയോടുള്ള ശീലം തന്നെ എല്ലാവർക്കും മാറിയിരിക്കുകയാണ് നേരിട്ട് കേൾക്കാമല്ലോ ടി വി എന്നുപറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കാണുന്നതിനും അതുപോലെ തന്നെ വാർത്തകൾ കേൾക്കുന്നതിനും അതില് സത്യസന്ധത എത്രമാത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മള് നമുക്ക് വേറെ അതിനു വേണ്ടിയിട്ട് വേറെ എഫർട്ട് ഒന്നും എടുക്കേണ്ടി വരുന്നില്ല അത് കാരണം കൊണ്ട് പത്രങ്ങളുടെ പത്രവായനയൊക്കെ ഇപ്പോൾ പാടെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വായന നല്ലതാണ് പത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കില് വായന എന്നുപറയുന്നത് നല്ല കാര്യമാണെങ്കിൽപ്പോലും അതിന് വേണ്ടിയിട്ടാരും മെനക്കടാറില്ല ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം മൊബൈലാണോ അതുപോലെത്തന്നെ റേഡിയോയാണോ പത്രങ്ങളാണോ ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ നൽകുന്നതെന്നാണ് തീർച്ചയായും അതിനുത്തരം സത്യസന്ധമായ വാർത്തകൾ നമുക്ക് നൽകുന്നത് റേഡിയോ തന്നെയാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഒരു എന്താണ് പറയുന്നത് നമുക്ക് ഉദാഹരണങ്ങളെത്ര വേണമെങ്കിലും നമുക്ക് പറയുവാനായിട്ടുണ്ട് നമുക്ക് റേഡിയോയിൽ നമുക്ക് സത്യസന്ധമായ വാർത്തകളോടൊപ്പം തന്നെ നമുക്ക് ധാരാളം ഗുണപാഠ കഥകളും നമ്മുടെ കേൾവി കേൾവിയെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നു അതേസമയം നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മളതിനെ ശ്രദ്ധയോടു കൂടി നമ്മള് അതിനെ വിലയിരുത്തുന്നു നമ്മളതിനെ കേൾക്കുന്നു അത് ഈ ടി വിയിലൊക്കെ നമ്മള് കാര്യങ്ങൾ കാണുമ്പോൾ കണ്ടതെന്താണെന്ന് പിന്നീട് നമ്മള് അതിനോടത്ര താല്പര്യം കാണുന്നില്ല ഇത് നമ്മള് മനസ്സും അതുപോലെ തന്നെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മളത്ര കണ്ട് ഇതാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു ഇതുകൂടി നമുക്ക് ടി വിയെക്കാള് കൂടുതലായിട്ട് റേഡിയോയും അതുപോലെത്തന്നെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളെക്കാൾ കൂടുതലായിട്ട് റേഡിയോയിൽ കേൾക്കുന്ന കാര്യങ്ങള് എല്ലാം അതായത് ഒരുപാട് ആൾക്കാരെ ഏതുവിധത്തിലും ആകർഷിക്കുകയെന്നുള്ളൊരു ലക്ഷ്യം റേഡിയോ സംബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല മറ്റ് പത്രങ്ങളിലാകട്ടെ മൊബൈലിലാണ് മൊബൈലിൻ്റെ കാര്യം പറയാനില്ല കാരണം എപ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാവിധ കാര്യങ്ങളും ലോകത്തില് ഏറ്റവും കൂടുതൽ തിന്മ പെരുകിയിരിക്കുന്നതും ഈ മൊബൈലിൻ്റെ ആവിർഭാവത്തോടുകൂടിയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും മൊബൈൽ നല്ലതാണ് മോശമല്ല നമുക്കത് നല്ല വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം മൊബൈല് തന്നെയാണ് പക്ഷെങ്കിൽ അതിൽ വരുത്താവുന്ന ചേഞ്ചുകള് അതിൽ വരുത്താവുന്ന എന്താണ് പറയുന്നത് ഏതിനെ വേണമെങ്കിലും സത്യമായതിനെ അസത്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് മൊബൈൽ മുഖേനെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സംഭവം റേഡിയോ തന്നെയാണെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല പിന്നെ പത്രങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാലും അതുതന്നെയാണ് പത്രത്തിന് വൈബ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏത് അസത്യത്തെയും സത്യമാണെന്ന് നമ്മളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വളച്ചൊടിച്ച് കാര്യങ്ങൾ ഒരു ദിവസം കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് പിറ്റേ ദിവസമാകുമ്പോഴേക്ക് അതിന് പൊടിപ്പും തൊങ്ങലും ചേർത്തായിരിക്കും നമ്മള് പിറ്റേ ദിവസം അതിനെ അറിയുന്നത് കാരണം ഏതുവിധത്തിൽ വേണം മറ്റുള്ളവരെ ആകർഷിക്കാനെന്നുള്ളൊരു ചിന്തയാണ് മത്സരമാണ് ഓരോ രംഗങ്ങളിലും നടക്കുന്നത് അപ്പോൾ ആ വിധത്തിലുള്ളൊരു പോക്കാണ് ഈ ചാനലുകള് അതുപോലെ തന്നെ നമുക്ക് ടി വി എടുത്തുകഴിഞ്ഞാലും ചാനലുകളില് ഏതിനാണോ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് അല്ലെങ്കിൽ ഏതുവിധത്തിലാണോ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതിനും എല്ലാ മാധ്യമങ്ങളും മത്സരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റേഡിയോയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എനിക്ക് തോന്നുന്നത് ഇതേപോലെയുള്ള അവർക്ക് വേറെ പ്രത്യേകിച്ച് മത്സരങ്ങളോ അതായത് ഒന്നൊന്നിനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരരംഗങ്ങളൊന്നും അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ നൽകുന്നത് റേഡിയോ തന്നെയാണ് നമുക്ക് മറ്റ് മാധ്യമങ്ങള് ഏത് വേണമെങ്കിലും നോക്കിയാലും മൊബൈലുകളിലൊക്കെ വരുന്നതില് ഒരംശം പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് മറ്റുള്ളവരെ ഏതെല്ലാം വിധത്തിൽ എങ്ങനെയെല്ലാം നമുക്ക് തിന്മയിലേക്ക് നയിക്കാൻ പറ്റുമോ അതെല്ലാം ആ വിധത്തിലുള്ളതും മൊബൈല് നേരായ വിധത്തിൽ യൂസ് ചെയ്തില്ലെങ്കില് അതിലൊത്തിരി നന്മകളുണ്ടെങ്കിൽപ്പോലും അത് തിന്മയിലേക്ക് പോകുന്നതിനുള്ള അവസരങ്ങൾ കൂടിയാണ് എന്നാൽ റേഡിയോ ഈ വിധ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാക്കുന്നില്ല തീർച്ചയായിട്ടും റേഡിയോ തന്നെയാണ് നമുക്കേറ്റവും ഉത്തമമായ മാർഗ്ഗം